ഒരു നല്ല നർത്തകിയിൽ നിന്ന് ഒരു മികച്ച നർത്തകിയെ വേറിട്ട് നിർത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ നൃത്തത്തിലുള്ള പ്രാവീണ്യം തന്നെയാണ് നൃത്തത്തിലുള്ള പ്രാവീണ്യമെന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് എത്രത്തോളം നൃത്തത്തിൽ താത്പര്യമുണ്ടോ അതനുസരിച്ചിരിക്കും അവരുടെ ആ നൃത്തത്തിലുള്ള ആ അവരുടെ ആ ഒരു പെർഫോമൻസ് അവർക്ക് എത്രത്തോളം കഴിവ് ആ ആഗ്രഹങ്ങളുണ്ടോ ആ നൃത്തത്തിലെത്രത്തോളം വേർ തിരിച്ച് അവർക്കു ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ അതൊക്കെ ആ അവർക്ക് അപ്പുറം നൃത്തത്തിലൂടെ അവർക്ക് പുറത്തേക്കു കൊണ്ടുവരാൻ സാധിക്കും ഒരു നർത്തകിക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴക്കം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് മെയ്വഴക്കം മെയ്വഴക്കം ഇല്ലാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല നർത്തകിയാണെന്നു കൂടി പറയാൻ പറ്റുകയില്ല ഒരു നല്ല നർത്തകിക്ക് മെയ്വഴക്കം ആവശ്യമുള്ളതു പോലെ തന്നെയാണ് അവരുടെ മുദ്രകളായാലും അവരുടെ ഗ്രെയ്സ്ഫുള്ളെന്നു പറയും ഗ്രെയിസ്ഫുള്ളായിട്ടുള്ള ഒരു നർത്തകിക്ക് വേറെ മറ്റുള്ള നർത്തകികളേക്കാളും വേറിട്ട ഒരു ഒരു സ്റ്റേജ് പ്രസൻസും ഉണ്ടായിരിക്കും